ഇന്നത്തെ കാലത്ത് ഫുട്ബോളും ക്രിക്കറ്റുമാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കാണുന്നത് കാരണം രണ്ടിലുമാണ് ഫുട്ബോൾ ഫുട്ബോളാണേലും ക്രിക്കറ്റാണേലും പിള്ളേരുടെ പാഷനിപ്പോൾ അതാണ് ഈ നൂറ്റാണ്ടുകളിലേറ്റവും കൂടുതൽ ഇതിഹാസങ്ങളും

വിരാട് കോഹ്ലി എം എസ് ധോണി സച്ചിൻ തെണ്ടുൽക്കർ അതുപോലെ മെസ്സി നെയ്മർ റൊണാൾഡോ അങ്ങനെയുള്ളവരെ കണ്ട് വളർന്നതുകൊണ്ട് ഇവരെ ഇതിഹാസങ്ങളായി ഇവരുടെ ഹീറോ ആക്കിമാറ്റി ഇവരെ ഇങ്ങനെയാണ് കളികൾ കണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ഫുട്ബോളിലോട്ടും ക്രിക്കറ്റിലോട്ടും തിരിയാനാണ് ആഗ്രഹം കാരണം ഇപ്പം ഏത് എവിടെച്ചെന്നാലും ഒരു ഗ്രൗൻഡിൽ ചെന്നാലും ഫുട്ബോളായിരിക്കും കേരളത്തിൽ കാണാറ് ക്രിക്കറ്റും ഉണ്ട് ഇല്ല എന്നല്ല ഏറ്റവും കൂടുതൽ ഫുട്ബോളാണ് കാണാറ് കാരണം പതിനൊന്ന് പേർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റും എത്ര പേര് ഗ്രൌണ്ടിലുണ്ടെങ്കിലും അത്രയും പേർക്ക് ഒരുമിച്ചിറങ്ങി കളിക്കാൻ പറ്റും ക്രിക്കറ്റെന്ന് പറയുമ്പോൾ കുറച്ചുപേർ ബാറ്റിങ് ടീമാണെങ്കിൽ കയറിയിരിക്കണം ഫീൽഡിങ് ടീമാണെങ്കിൽ എല്ലാവരും കാണും അങ്ങനെ ഓരോ ഇതുള്ളതുകൊണ്ട് ക്രിക്കറ്റിനെ ആരും ഇപ്പോൾ സ്നേഹിക്കാറില്ല സ്നേഹിക്കുന്നവരുണ്ട് പണ്ടുള്ളവർ അങ്ങനെയാണ് ഇപ്പോൾ വളർന്ന് വരുന്ന ന്യൂ യുവജനങ്ങളെല്ലാവരും ഫുട്ബോളിനോടാണ് താല്പര്യം പ്രകടിപ്പിക്കാറ് കാരണം അവരെ കുറേ ഇതിഹാസങ്ങളായി കാണുന്നവർ പല അവസ്ഥയിൽ നിന്ന് വരുന്ന ആവരുടെ കരിയറിഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളിനോടാണ് താൽപര്യം തോന്നാറ് ഫുട്ബോൾ ക്രിക്കറ്റ് വോളീബോൾ അങ്ങനെ ഓരോരുത്തരോട് താൽപര്യമുള്ളവരുണ്ട് അങ്ങനെ കളികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കാറ് ഫുട്ബോളാകുമ്പൊത്തേക്കിനും പല രീതിയിൽ നമുക്ക് കയറിപ്പോവാം ഇപ്പോൾ ക്ലബ്ബുകൾ സന്തോഷ് ട്രോഫി അങ്ങനെ സ്വാഭാവികമായിട്ടും കയറിപ്പോവാം ഇപ്പോൾ ഇന്ത്യയിൽ എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിനാണ് വാല്യൂ ഫുട്ബോള് ഇന്ത്യൻ ഫുട്ബോള് കയറി വരുന്നോള്ളു ക്രിക്കറ്റാവുമ്പൊത്തേക്കിനും ഏറ്റവും കൂടുതൽ ഇന്ത്യ അറിയപ്പെടുന്നത് ക്രിക്കറ്റിങ് കൺട്രി ആയിട്ടാണ് ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് കോടികൾ വില കൊടുത്ത് ആൾക്കാരെ എടുക്കുന്നത് ഫുട്ബോളകുമ്പൊത്തേനും താഴ്ന്നു താഴ്ന്ന് എടുക്കുന്നത് വേൾഡ് കപ്പിൽ കയറിയിട്ടില്ല പക്ഷേ രണ്ടും ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്